എന്നെ ഉറക്കെ ഉറക്കെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ടോം ആൻഡ് ജെറി അതുപോലെ ബോബനും മോളിയും അത് ഒരുപാട് വായിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് ബോബനും മോളിയും അതിൻ്റെ അച്ഛനോടും അമ്മയോടും പറ്റിക്കുന്നതും അതുപോലെ നാട്ടുകാരെ പറ്റിക്കുന്നതും അവരെ കടയിൽ വിട്ടാല് കടയിൽ പോയിട്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കാൻ ബോബനും മോളിയും പറഞ്ഞ് വിട്ട് കഴിഞ്ഞാല് അവര് ആ പൈസക്ക് വേറെന്തെങ്കിലും സാധനം മേടിച്ച് തിന്നും എന്നിട്ട് കടക്കാരൻ്റെ അടുക്കൽ ചെന്ന് അതെടുക്ക് ഇതെടുക്ക് പറഞ്ഞിട്ട് അവരത് എടുക്കാനായിട്ട് തിരിയുമ്പോൾ അവർക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് പറഞ്ഞ് വിട്ട സാധനങ്ങളെല്ലാം അവര്

കടക്കാരന് സാധനങ്ങൾ എണ്ണി നോക്കുമ്പോൾ കുറയുമ്പോൾ അവിടെ വന്നേക്കുന്നത് ഇവരാണെന്ന് അറിഞ്ഞു ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും അവിടെ തമാശ ഒപ്പിക്കുകയും അതുപോലെ തന്നെ അവര് പറഞ്ഞ സാധനങ്ങളെല്ലാം ഞങ്ങള് കൊണ്ട് തന്നു ചേട്ടൻ്റെ സാധനങ്ങൾ ഞങ്ങളെടുത്തിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നവരെ വന്നവരെ കൂടെ കൺഫ്യൂഷൻ ആക്കി അതായത് കടയിൽ നിന്ന് വന്ന ആൾക്കാരെ കൂടെ കൺഫ്യൂഷനാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ടോം ആൻഡ് ജെറിയിൽ ഇതുപോലെ തന്നെ പൂച്ചയും എലിയും ആയിട്ടുള്ളൊരു കളിയാണ് ടോം ആൻഡ് ജെറി അതില് പൂച്ച ടോമായ ടോമെന്ന പൂച്ച ജെറിയെന്ന എലിയെപ്പിടിക്കാനായിട്ടൊരുപാട് പക്ഷേ അതിനെ കൊല്ലില്ല അതുമായിട്ട് കളിക്കുന്ന ഒരുപാട് ഓടിക്കുകയും അതിൻ്റെ ഓടിക്കുന്നതിൻ്റെ ഇതായിട്ട് ആ എലി അതിനെ പാത്രം കൊണ്ട് എറിയുകയും അതുപോലെ അത് തലകുത്തി മറിഞ്ഞ് വീഴുകയും പൂച്ചയെ ഇട്ട് എലി കളിപ്പിക്കുന്ന ഒരു രീതിയാണ് ടോം ആൻഡ് ജെറിയുടെത് ഒരുപാട് നമ്മളെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും നമ്മുടെ മനസ് ഒത്തിരി റിലാക്സ് ആക്കാൻ സഹായിക്കുകയും ചെയ്യും